ഹലോ ഇതാരാണ് ആ ആ ഓക്കേ ആ ആ ഓക്കേ തയ്പ്പിക്കാം എന്നത്തേക്കാണ് അത് വേണ്ടത് എന്നെ മുൻ ഒരാഴ്ച മുന്നേ ആ നമുക്ക് നോക്കാം ഓക്കേ റെഡി ആക്കാം ആ ആ അപ്പോൾ അതിൻറെ ഒരു മോഡൽ അതിൻറെ ഒരു പിക്ച്ചർ എനിക്ക് അയച്ചിടുകയാണെങ്കിൽ നന്നായിരുന്നു ഫ്രണ്ടും ബാക്കും ആ ഓക്കേ ആ ഓക്കേ ഇതിന് വേറെ ബെൽറ്റോ അങ്ങനെ എന്തെങ്കിലുമുണ്ടോ ടൈയോ അങ്ങനെ എന്തെങ്കിലും ആ ഓക്കേ ബെൽറ്റിൻ്റെ ബെൽറ്റും ടൈയൊക്കെ ഏത് കളർ ആണ് വരുന്നത് ആ ഓക്കേ എംബ്ലത്തിൻറെ ഒരു ഇമേജ് പ്രൊവൈഡ് ചെയ്യില്ലേ എംബ്ലം ആ ഓക്കേ ലെഫ്റ്റ് സൈഡിൽ ആ ഓക്കേ ഇത് എന്നാണ് മെഷർമെന്റ്സ് എടുക്കാൻ പറ്റുക ആ ഓക്കേ ആ ഞാനൊരു അഞ്ച് പേരെ സെൻഡ് ചെയ്യാം അയയ്ക്കാം അവിടെ അഞ്ച് പേരെ ഇരുപത്തെട്ടാം തീയതി എപ്പോളാണ് കാലത്താണോ കാലത്തല്ലേ പത്ത് മണി ആ ഓക്കേ പത്ത് മണിക്ക് ആളെ വിടാം അഞ്ച് പേർ വരും കേട്ടോ വൈറ്റ് സോക്സ് ആ ഓക്കേ ആ

ആ ഓക്കേ മെറ്റീരിയൽ സാദാ യൂണിഫോംസിൻ്റെ മെറ്റീരിയൽ തന്നെ അല്ലേ ഇനി വേറെ ഏതെങ്കിലും സ്പെസിഫിക്കേഷൻസ് ഉണ്ടോ ആ ആ ആ ആ ഞങ്ങൾക്ക് അറിയുന്നൊരു ഹോൾസെയിൽ കടയുണ്ട് അപ്പം അവിടുന്ന് നമുക്ക് പർച്ചേസ് ചെയ്യാം ഞങ്ങൾ കുറേ വർഷങ്ങളായിട്ട് അവിടുന്നാണ് പർച്ചേസ് ചെയ്യുന്നത് ആ ഓക്കേ ഓക്കേ ഓക്കേ ആ അപ്പോൾ അപ്പോൾ തന്നാൽ മതി